ഹലോ ഹലോ ഹോൾ സെയിൽ ഡീലറല്ലെ ആ സാറെ നമസ്കാരം എൻ്റെ പേര് ഷാഹിൻ ഞാൻ ഇങ്ങനൊരു ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ അതിപ്പം സാറിൻ്റടുത്തുന്നിങ്ങനെ സാധനങ്ങളെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ അതെ ബൾക്കായിട്ട് സാറിന് ഞാൻ ഇപ്പം തരാൻ പറ്റുവോ ഡിസ്കൗണ്ട് ഉണ്ടോ ആ നമ്മുടെ

ഓക്കെ ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കട ഇങ്ങനെ സാർൻ്റെ അടുത്തുന്നാണ് എടുക്കണതെന്ന് പറഞ്ഞു അത്കൊണ്ടാണ് ഞാനവൻ്റെയ്ന്ന് നമ്പര് വാങ്ങിച്ചിങ്ങനെ വിളിച്ചത് ആ നമ്മൾ ലേഡീസിൻറ്റേമ് കിഡ്സിൻറ്റേ ജനാ മെൻസിൻറ്റേ എല്ലാരേം ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പം എല്ലാം കിട്ടത്തില്ലേ ആ നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിക്കാം സംവിധാനങ്ങളുണ്ടോ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ സാറെ ലൊക്കേഷനൊന്ന് പറയാമോ എവിടെയാണെന്ന് പാരിപ്പള്ളി ഓക്കെ ഓക്കെ സാർ ഫോൻ നമ്പരൊന്ന് തരാങ്കിൽ ഒന്ന് വിളിക്ക് വിളിച്ചിട്ട് വരാമായിരുന്നു ഓ ഒന്ന് പറയുവോ എഴുപത് പന്ത്രണ്ട് എൺപത്തെട്ട് അൻപത്താറ് പൂജ്യം അഞ്ച് ആ സാറെ ഇരുവത്തേഴാം തീയതി പിന്നെ ഇത് ഉദ്ഘാടനമാണ് സാറ് വരണം ആ ഓക്കെ ഓക്കെ വളരെ സന്തോഷം ആ നമ്മൾ ഓഫറ് കൊടുക്കുന്നുണ്ട് ഗീവെവേയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കൃത്യം ഇന്ന ടൈമിനനുസരിച്ച് വരുന്നവർക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെരിപ്പിൻറ്റേ നമ്മൾ ചെയ്യാനുദ്ദേശിക്കുന്നുണ്ട് ആദ്യം ഈ ഇപ്പം ഡ്രസ്സിൻ്റെ ഒക്കെയാണ് ഇപ്പമത് മെയ്നായിട്ട് നോക്കുന്നത് ചെറിയൊരു കടയാണ്

ആ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്

ആ നമ്മളൊരു നൂ നൂറെണ്ണം വെച്ചിങ്ങ് എടുക്കാം

വേറിപ്പം എല്ലാം തരാൻ പറ്റാത്തോണ്ട് പറ്റുവല്ലോ ആ

പുതിയ ഫ്യാഷൻസ് എല്ലാ കളക്ഷൻസും ഉണ്ടല്ലോ ആ നമ്മൾ ഇവിടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് കട അപ്പം പിള്ളേരൊക്കെ പുതിയ പുതിയ ഫ്യാഷൻസല്ലെ സാറെ

ഓക്കെ ഓക്കെ ഓ താങ്ക് യു സാർ താങ്ക് യു സാർ ചെയ്യാം ലൊക്കേഷൻ ബരതന്നൂര് ഹൈസ്കൂളിന് സമീപം ഓപ്പോസിറ്റ് ആ പുതിയ കട ആ ആർ ക്യൂ ആർ ക്യൂ ടെക്സ്റ്റൈൽസെന്നാണ് പേര് ഓക്കെ സാർ താങ്ക് യു ഞാൻ വിളിക്കാം